നല്ല ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു അതിൽ ഇഷ്ടം പോലെ പണ്ടത്തെ പരമ്പരാഗത നൃത്തങ്ങളൊക്കെ കാണിച്ചിരുന്നു അതുപോലെ തന്നെ കഥക് ഭരതനാട്യം ഇതൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഡാൻസുകളായിരുന്നു സോ എനിക്ക് ആ ഒരു പ്രോഗ്രാം വളരെ ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ പത്മശാലിനി എന്ന് പറഞ്ഞൊരു മേഡത്തിൻ്റെ അക്കൗണ്ട് അത് ഞാൻ ഫോളോ ചെയ്യുന്നതാണ് പുള്ളിക്കാരത്തിയുടെ ഡാൻസ് ഭരതനാട്യം കവർ സോങ്ങ്സൊക്കെ ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് നല്ല ഒരു ഡാൻസ് ഡാൻസറുമാണ് അതുപോലെ തന്നെ നല്ല ഒരു നൃത്തശൈലിയാണ് പുള്ളിക്കാരത്തി പരമ്പരാഗത നൃത്തങ്ങളാണ് കൂടുതലും പുള്ളിക്കാരത്തി ചെയ്യുന്നത് അത് ഭരതനാട്യത്തിലാവാം കുച്ചിപ്പുടി മോഹിനിയാട്ടം അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്